ഹലോ ക്യാബ് ഏജൻസിയല്ലേ ഞാൻ കഴിഞ്ഞയാഴ്ച്ച ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോടേയ്ക്ക് പോകുവാൻ വേണ്ടിയിട്ട് ആ നാളത്തേക്കായിരുന്നു അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ ഒരു ഡാൻസ് പ്രോഗ്രാമിനു വേണ്ടിയിട്ടായിരുന്നു ക്യാബ് ബുക്ക് ചെയ്തിരുന്നത് ഞാൻ വീണ് എൻ്റെ കാലൊടിഞ്ഞതുകൊണ്ട് പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ ക്യാബ് ഒന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ഞാൻ ഒരു രണ്ടായിരം രൂപ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാബ് ക്യാബ് ബുക്ക് ചെയ്യാൻ നേരത്തു ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നു തിരിച്ച് റിട്ടേൺ ചെയ്യുമോ ഓക്കെ വളരെ ഉപകാരം ഈ അക്കൗണ്ടിൽ അതെ ഈ നമ്പറിൽ തന്നെയാണ് താങ്ക് യു സർ